ഞാൻ സെലക്റ്റ് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗേലക്സിയുടെ എസ് ട്വന്റി ത്രീ അൾട്ര ആയിരുന്നു മൊബൈൽ ഫോണായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്

ഫുൾ ക്ലാരിറ്റി ഒക്കെ ആയിട്ട് നല്ല ക്യാം ആണ് ഉള്ളത് എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ടാണ് തോന്നിയത് കാരണം അത്രക്ക് ക്യാമറ ക്ലാരിറ്റിയും നല്ല സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ നല്ല ബേറ്ററി കപ്പാസിറ്റിയും എല്ലാം അതിനുണ്ട് അതായത് പണ്ടത്തെ എൻ്റെ ഫോണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാർജൊക്കെ കഴിയുന്നതായിരുന്നു അധിക നേരം അധികം സ്റ്റോറേജൊന്നും കിട്ടാത്തതായിരുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് മാറിയതിൽ പിന്നെ ഈ ഫോണിൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് തോന്നിയത് എന്താച്ചാൽ നല്ല ചേഞ്ച് ഉണ്ട് കാരണം എന്താച്ചാൽ എനിക്ക് ഒരുപാട് നേരം യൂസ് ചെയ്താലും ഫോൺ ഹീറ്റാവുകയോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്ന് പറയുന്നത് ഒരു പബ്ജി ഫ്രീ ഫയറൊക്കെ കളിക്കുന്നൊരു പേഴ്സൺ ആണ് അപ്പം അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കുന്നത് ആയതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് കുറേ നേരം ഫോൺ യുസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ ഫോൺ അങ്ങനെ ഹീറ്റാവുകയോ അല്ലെങ്കിൽ ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോവുകയോ ഒന്നും ചെയ്യുന്നില്ല പണ്ടത്തെ ഫോൺ ആണെങ്കിൽ പെട്ടെന്ന് ചാർജ് തീർന്ന് എനിക്ക് കളി തീരുന്നതിന് മുൻപു തന്നെ ഫോൺ ഓഫായി പോകുന്ന അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം നല്ല നല്ല എഫക്റ്റീവ് ആയിട്ട് എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ പണ്ടത്തെ ഫോണിൽ എൻ്റെ സൗണ്ടിൻ്റെ നമ്മളിപ്പോൾ ഒരാളെ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ഇടയിൽ വേറെന്തെങ്കിലും സൗണ്ടൊക്കെ കേക്കുമായിരുന്നു എൻ്റെ സ്പീക്കറിൻ്റെ കുഴപ്പമായിരുന്നു പക്ഷെ ഈ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റാണ് നല്ല ക്ലിയർ ആണ് എല്ലാം എനിക്ക് നല്ല നല്ല അത്രക്കും എനിക്കിഷ്ടപ്പെട്ടു കാരണം അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്